ഇപ്പോൾ ഓരോ കലഘട്ടങ്ങളിലും ഓരോ സ്റ്റാമ്പുകളും നാണയങ്ങളും കല്ലുകൾ ഒക്കെയാണ് ഉപയോഗിച്ച് ഇപ്പോൾ ആദ്യ കാലങ്ങളിലുള്ള നാണയങ്ങൾ അല്ല ഈ ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചു കൊണ്ട് ഇരിക്കുന്നത് ഇപ്പോൾ ഓരോ ജില്ലകളിലും അല്ല ഓരോ കൺട്രികളിലും ഓരോ ഓരോ ഇപ്പോൾ ഇന്ത്യയിലെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സൗദി അറേബ്യ ഒമാൻ എന്നിവിടങ്ങളിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഓരോ കറൻസി അല്ലെങ്കിൽ റിയാൽ റു റുപ്പേ എന്ന് ഒക്കെ പറഞ്ഞ് ഒരുപാട് പൈസ പൈസയുടെ മൂല്യം തന്നെ വേറെ വേറെ സ്ഥലങ്ങളിൽ വേറെ വേറെ രീതിയിലാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഇടയിൽ പണ്ട് കാലങ്ങളിൽ ഇരുപത്തി അഞ്ച് പൈസ പത്ത് പൈസ അൻപത് പൈസ ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അൻപത് ഒരു രൂപ തൊട്ട് ആണ് കടകളിൽ ആയാലും എന്ത് സാധനം വാങ്ങാൻ ആണെങ്കിലും ഒരു രൂപ കോയിൻ ആണ് ഉപയോഗിക്കുന്നത് ഒരു രൂപ കോയിൻ ആണ് എടുക്കുന്നത് അവർ പത്ത് പൈസ ആദ്യം ഒരു രണ്ട് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപ് അൻപത് പൈസ എടുത്തുകൊണ്ട് ഇരുന്നു എൻ്റെ പഠിപ് പഠിക്കുന്ന കല ഘട്ടത്തിലൊക്കെ അൻപത് പൈസ ഇരുപത്തി അഞ്ച് പൈസ എടുത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിന് മുൻപ് പത്ത് പൈസ ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ ഇരുപത്തി അഞ്ച് പൈസ അൻപത് പൈസ പത്ത് പൈസ ഒക്കെ അന്യൻ നിന്ന് പോയ്കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ശേഖരിച്ച് നമുക്ക് ഒരു ഓർമ്മയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോയിനുകളൊക്കെ നമ്മൾ നമുക്ക് ഇപ്പം വരും കാലഘട്ടങ്ങളിൽ ഓരോരുത്തർക്കും കാണിച്ച് കൊടുക്കാമല്ലോ ഇത് പണ്ടുള്ള കോയിൻ ആയിരുന്നു എന്നൊക്കെ അതുപോലെ തന്നെയാണ് സ്റ്റാമ്പുകളും സ്റ്റാമ്പുകൾ എന്നു വെച്ചാൽ ഒരുപാട് സ്റ്റാമ്പുകൾ ഉണ്ട് ഇപ്പോൾ നമ്മൾ മുദ്ര പേപ്പർ പേപ്പറിലോ ഉപയോഗിക്കുന്ന സ്റ്റാമ്പ് വേറെ ആയിരിക്കും അതുപോലെ ഇപ്പം നമ്മൾ ഒരാൾക്ക് കത്ത് അയക്കുമ്പം സ്റ്റാമ്പ് ഒട്ടിക്കും അത് വേറെ ആയിരിക്കും അങ്ങനെ ഒരുപാട് തരത്തിൽ വേറെ ഓരോ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ സ്റ്റാമ്പുകളും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റാമ്പുകളും അതുപോലെ നാണയങ്ങൾ ഒക്കെ ഇപ്പോൾ പഠിക്കുന്ന കാലങ്ങളിലൊക്കെ എക്സിബിഷനൊക്കെ നടത്തുമ്പം നമുക്കിങ്ങനെ നിരത്തിയിട്ട് ഇന്ന സ്ഥലത്തുള്ള കോയിൻ ആണ് അല്ലെങ്കിൽ ഇത് ഇന്ന സ്റ്റാമ്പ് ഈ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് ഒക്കെ വിദ്യാഭാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കാം